ഹലോ ആ പറയൂ ആ അതെ അതെ അതെ അതെ എവിടെ നിന്നാണു വിളിക്കുന്നത് ആ ഓക്കെ ആയിക്കോട്ടെ

ഓക്കെ നമ്മുടെ മ്മ് നമ്മടെ മെയ്നട്രാക്ഷൻ എന്നു പറയുന്നത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് അപ്പോള് വനത്തിന്റെ ഇടയിൽ ഉള്ളിലോട്ടുള്ള ഒരു മൂന്നുമണിക്കൂര് യാത്രയാണ് പ്രധാനമായും നമ്മള് കണ്ടക്റ്റീയുന്നത് അത് നാ നിങ്ങളൊരു ആറു പേരാണെങ്കില് അതിന് നമ്മള് അതിനു കണക്കായിട്ടുള്ള വണ്ടികളൊക്കെ ഞങ്ങള് തന്നെ അറേയ്ജെയ്തോളും രാവിലെ ആറു മണിക്കാണ് നിങ്ങള് എത്തണ്ടത് സ്പോട്ട് മാനന്തവാടിയിലാണ് എത്തണ്ടത് ഒരു ആറു മണിയാവുമ്പോള് മാനന്തവാടിയിലെത്തിയാല് നമ്മളെ വണ്ടിവന്നു നിങ്ങളെ പിക്കപ്പെയ്തോളും പിക്കപ്പെയ്ത് തോൽപ്പെട്ടി ഭാഗങ്ങളിലാണ് ഉള്ളിലോട്ടുള്ള കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ യാത്ര ചെയ്യാം വ്യത്യസ്തമായ മൃഗങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് അടുത്തു കാണാം ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാന് പറ്റും ഫുഡും കാര്യങ്ങളൊക്കെ പാക്കേജ് ഒരാൾക്ക് തൗസൻ്റ് റുപ്പീസാണ് വരുന്നത് ഈ ഒരു ഫുൾ ജേണി മൊത്തം നമ്മള് അറേഞ്ചെയ്തിട്ടുണ്ടാവും അതില് ഫുഡും കാര്യങ്ങളും സ്റ്റേ ആയിട്ടൊന്നുമില്ല വൈകുന്നേരത്തേക്കും പരിപാടി തീരും അപ്പോള് നിങ്ങള്ക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളറേഞ്ചെയ്യും വൈകുന്നേരം തിരിച്ചു നിങ്ങളെ എൻ്റ് പോയിൻ്റിലേക്കു നിങ്ങള് എവിടെനിന്നാണോ സ്റ്റാർട്ടീയ്തേ അവിടെ നമ്മള് ഡ്രോപ്പീയേം ചെയ്യും അങ്ങനെയാണ് പാക്കേജ് വരുന്നത് വൺ ഡേ ആയിട്ടാണ് വരുന്നത് അതില് അഡീഷണൽ വരണേങ്കില് നിങ്ങള്ക്ക് റിസോര്ട്ടുകളൊക്കെ ബുക്കീയ്യണം അത് വേറെ എമൗണ്ടായിരിക്കും ഓ ഓക്കേ ഓക്കെ ഓക്കെ അങ്ങനയാണെങ്കില് കുഴപ്പമില്ല ഞങ്ങള് റീസോര്ട്ടടക്കം ബുക്കീയ്യാം അങ്ങനയാണെങ്കില് നമ്മള് നിങ്ങളെ രാവിലെ ആറുമണിക്ക് നിങ്ങള് സ്ഥലത്തെത്തിയാൽ നിങ്ങളെ പിക്കപ്പെയ്ത് നമുക്ക് വൈൽഡ്ലൈഫ് സാഞ്ചുറീൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ടതിനുശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വൈകുന്നേരമാകുമ്പോഴത്തേക്കും നമുക്ക് റിസോര്ട്ടില് പോയി സ്റ്റേ ചെയ്യാം അവിടെ അവിടെയും ഒരുപാട് കാറ്റ് ഇതൊക്കെയുണ്ട് ഇപ്പോള് പാട്ടുവയ്ക്കാം രാത്രി ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാവും അത് ക്യാമ്പ് ഫയറൊക്കെയുണ്ട് നമുക്ക് അറേൻജീയ്യാതൊക്കെ ഓക്കെ ഓക്കെ ശരി